ആ എനിക്കൊരു ബഡ്ജറ്റ് വേണമായിരുന്നു ആ കല്യാണം കല്യാണം അടുപ്പിച്ചിട്ടാണ് അപ്പം പ്രി വെഡിങ്ങും പോസ്റ്റുമെല്ലാം വേണം ആ ആ രണ്ടും കൂടെ രണ്ടും കൂടെ വേണമായിരുന്നു

അങ്ങനെയൊന്നും വേണ്ട നോർമലി എന്താണ് പറയുക സേവ് ദി ഡേറ്റും അങ്ങനെയൊക്കെ മതി ചെറിയ ചെറിയ ഫോട്ടോസ് വിഡിയോസും പിന്നെ കല്യാണത്തിന് ഫുൾ കവറേജ് വേണം ആ ഓക്കെ ആ ആ പെൻഡ്രൈവ് ആയാലും കുഴപ്പമില്ല ആ ഞങ്ങൾ ഞങ്ങൾ കൊണ്ടുത്തരാം

ആ ആൽബം വേണം ഫ്രെയിം ഉണ്ടെങ്കിൽ ഫ്രെയിമും അങ്ങനെ മഗും സെറ്റപ്പും അങ്ങനെയൊക്കെയില്ലേ

ആ ഓക്കെ ആ നല്ല ക്വാളിറ്റിയിൽ വേണം ആ അപ്പം ഈ മാസം അവസാനത്തേക്കാണ് ഡേറ്റ് വരുന്നത് ആ കല്യാണം ആ നവംബർ ഒരു മുപ്പത് മുപ്പത്തി മുപ്പത്

അപ്പോൾ എത്ര ദിവസം മുൻപ് എടുക്കേണ്ടി വരും പോസ്റ്റ് വെഡിങ്ങ് ആ നമ്മൾ ലൊക്കേഷൻ ഇപ്പം ലൊക്കേഷൻ കോഴിക്കോട് തന്നെ വേണ്ട പുറത്ത് എവിടെയെങ്കിലും നോക്കാമെന്ന് വിചാരിക്കുന്നു

ആ നമുക്കെന്തായാലും ഒരു രണ്ട് കോസ്റ്റ്യൂമോ മൂന്ന് കോസ്റ്റ്യൂമോ വേണം ആ പിന്നെ പോസ്റ്റ് വെഡിങ്ങ് പിന്നെ നോക്കിയിട്ട് പറയാം

ആ ഓക്കെ ഓക്കെ ആ പതിനാലിന് കുഴപ്പമില്ല അപ്പം ഞമ്മക്ക് വയനാട് പോവാമല്ലേ ആ എന്താ എന്തായാലും കുഴപ്പമില്ല എന്തായാലും കുഴപ്പമില്ല നിങ്ങൾ നോക്കിക്കോളൂ ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ സെറ്റും സ്ഥലമൊക്കെ ആ അപ്പം രണ്ട് വണ്ടിയിൽ പോവാമല്ലേ അപ്പം നിങ്ങൾ വേറെ വണ്ടിയിൽ വന്നോളുമല്ലേ ആ ഈ ഈ നമ്പർ തന്നെയാണോ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ എന്നാൽ പിന്നെ കയ്യിൽ തരാം ആ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ എന്നാൽ ശരി വിളിക്കാം കേട്ടോ